സമൂഹ മാധ്യമങ്ങൾ കടന്നു വരുന്ന ഉപയോഗങ്ങൾ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ എത്തുന്നത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള അധിഷ്ടിതമായിട്ട് കാര്യങ്ങളും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമൂഹ്യ പ്രശ്നങ്ങളാണ് ഉള്ളത് സമൂഹ മാധ്യമങ്ങൾ അതായത് നമുക്ക് ഇപ്പം സമൂഹത്തിൽ എന്ത് നടക്കുന്നു നമുക്ക് ഇപ്പം പത്രവായനയിലൂടെ അല്ലാതെ തന്നെ സോഷ്യൽ മീഡിയകളിൽ തന്നെ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കടന്നു വരവിന് ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഇൻഫോമേറ്റീവ് ആയിട്ടുള്ള കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടു വർത്തമാനമൊക്കെ ആ യ പല കാര്യമായിക്കോട്ടെ നമുക്ക് അത് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും സമൂഹ മാധ്യമങ്ങളിൽ എന്താണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ സമൂഹത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ഇപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങളും ഇപ്പോഴത്തെ സമൂഹത്തിലെ കുട്ടികൾ ഇനി പുതിയ തലമുറകളെന്ന് പറയുന്നത് ഫോണിലൂടെ മാത്രം അവർ ഉയോഗിക്കുന്ന ഫോണിൽ മാത്രം അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫോൺ എന്ന് പറയുമ്പോൾ അവർക്ക് അത് അത് അവരുടെ ഒരു ഒരു ലൈഫ് ഓഫ് ദ എന്ന്വശ്ശാ എന്ന് വച്ചാൽ അവരുടെ ഒരു ശരീരത്തിലെ ഒരു ഭാഗമായിട്ടാണ് അവർ കാണുന്നത് എന്തെന്ന് വച്ചാൽ അവർ അത് എങ്ങനെ അവർ എടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നില്ല എന്നത് പോലെ തന്നെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളാണ് ഉള്ളത് സാമൂഹ മാധ്യമങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്തണം നമ്മൾ അതൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെ ആണ് അത് ഒരു വളരെ നല്ല ഒരു വിഷയമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് വാർത്ത വായിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളോട് തന്നെ നമ്മൾ ചെയ്യുക തന്നെ വേണം സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയുന്ന നമുക്ക് ഇപ്പം പല കാര്യങ്ങളായിക്കോട്ടെ ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ വാട്സപ്പ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ട്വിറ്റർ ആയിക്കോട്ടെ അങ്ങനെ ഒത്തിരി ഒത്തിരി സമൂഹ മാധ്യമങ്ങളാണ് നമ്മൾക്ക് ഉള്ളത് അപ്പോൾ ആ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ എങ്ങനെ നമ്മൾ എങ്ങനെ നമ്മൾക്ക് അത് പ്രയോജിതമാക്കാം എന്ന് തന്നെയാണ് നോക്കേണ്ടത് അതായത് ഇപ്പം സമൂഹ മാധ്യമം ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് എടുക്കുന്നു ഫേസ്ബുക്കിൽ തന്നെ നമ്മൾക്ക് ഒത്തിരി വേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ട് വേണ്ടാത്ത കാര്യങ്ങളുമുണ്ട് വേണ്ടുന്ന കാര്യം നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും സാഹചര്യങ്ങളുമാണുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് പല പല കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള വിശദാംശങ്ങളും ഇതിൽ തന്നെയുണ്ട് സാങ്കേതിക പരമായിട്ടുള്ളതും മാനസികപരമായിട്ടുള്ളതും കാര്യങ്ങൾ ഇപ്പം ഇപ്പോൾ ഫോൺ ഉപയോഗം അതായത് ഈ മൊബൈൽ ഫോൺ യൂസിലൂടെ നമ്മൾക്ക് എന്താണ് നമുക്ക് ഇൻഫോമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് ഇൻഫോർമേറ്റീവ് അല്ലാത്ത കാര്യങ്ങളും നല്ല കാര്യവുമുണ്ട് ചീത്ത കാര്യവുമുണ്ട് അപ്പം നല്ല കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് ചീത്ത കാര്യങ്ങൾ വിടുക തന്നെ വേണം സമൂഹത്തിൽ ഇപ്പം ഇപ്പം സമൂഹം എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് വച്ചാൽ നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹം മാധ്യമത്തിൽ പ്രൊവൈഡ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ട നമ്മൾക്ക് അതിന് നമ്മൾക്ക് ഉപയോഗകരമായിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾക്ക് ചെയ്യാൻ അതായത് അതായത് എല്ലാ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളാണ് ഉള്ളത് സാമൂഹ മാധ്യമങ്ങളിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു കടമ നമ്മൾക്ക് നൽകേണ്ടതായിട്ടുണ്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രശംസയും കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങളുമാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കടന്നു വരുന്നത് അതിൻ്റേതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതായത് ഫേസ്ബുക്കിലൂടെ നമുക്ക് ഫേസ്ബുക്കിലൂടെ നമ്മൾക്ക് നമ്മുടെ നമ്മൾക്ക് നമ്മുടെ നമുക്ക് ഒരു ഇൻഫോർമേഷനാണ് ഈ സമൂഹ മാധ്യമം എന്ന് പറയുന്നത് നമ്മൾക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും അല്ലാണ്ട് നമ്മൾക്ക് ഇത് അതിനെ നമ്മൾ യൂസ് ചെയ്യണം എങ്ങനെ നമ്മൾ അതിനെ യൂസ് ചെയ്യാം അല്ലാണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ആവാതെ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ നമുക്ക് എങ്ങനെ അത് ഇൻഫോമേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് വേണം നമ്മൾക്ക് നോക്കാൻ അല്ലാണ്ട് അതിനെ എടുത്തിട്ട് അതിനെ ദുരുപയോഗം ചെയ്ത് ദുരുപയോഗം ചെയ്യാതെ അതായത് അതിനെ അതിനെ എന്താണ് അതിനെ നാം വേറൊരു രീതിയിൽ കാണാതെ നല്ല രീതിയിൽ തന്നെ കണ്ടു സമൂഹമാധ്യമങ്ങളെ നമുക്ക് നമ്മുടെ ലൈഫിലെ പ്രായോഗികമായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ എല്ലാ മാറ്റങ്ങളും അതായത് സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതായത് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളിൽ തന്നെ നമ്മൾ അതിനെ ഇൻഫോർമേറ്റീവ് ചെയ്യുകയും എടുക്കുകയും തന്നെ വേണം നമ്മുടെ ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ജീവിതശൈലി എന്ന് വച്ചാൽ നമ്മൾക്ക് ഒരു ഒരു ഒരു സാമൂഹ മാധ്യമം ഇല്ലാതെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടു പോവാൻ പറ്റില്ല കൊണ്ടു പോവാൻ തന്നെ പറ്റില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലും കാര്യങ്ങളും തന്നെ എടുക്കുകയും അത് ചെയ്യുകയും തന്നെ വേണം എല്ലാ കാര്യവും അതിൻ്റേതായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും അതിനെ ബഹുകരിക്കുകയും ചെയ്യണം ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ എന്നു പറയുന്ന കാര്യത്തിൽ നമുക്ക് തന്നെ നമുക്ക് ഒത്തിരി മേച്ചിങ്ങുള്ള അതായത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ എങ്ങനെ നമ്മൾക്ക് നമുക്ക് എങ്ങനെ അതിനെ വിരൂപിലിപ്പിക്കാമെന്ന് തന്നെ ചെയ്യുകയും വേണം സമൂഹ മാധ്യമങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെ വാർത്തകൾ അതായത് നമുക്ക് ഒത്തിരി ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ തന്നെ നമ്മൾക്ക് അതിലുണ്ട് അപ്പോൾ അത് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുകയും വേണം സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ നല്ല ഒരു കാര്യമായിട്ടും അതിനെ എങ്ങനെ നലാ എങ്ങനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നതും വേണം